ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട് ആലപ്പുഴയിൽ പോകാറുണ്ട് ആലപ്പുഴയിൽ കാണാൻ എനിക്ക് ഇഷ്ടമാണ് കാണാൻ എനിക്ക് ഇഷ്ടമാണ് അവിടെ ഹൗസ്ബോട്ട് ഉണ്ട് ഹൗസ്ബോട്ടിൽ കയറിയിട്ടുണ്ട് യാത്ര ചെയ്യുമ്പം കായലിൽ കായലിൻ്റെറമ്പിൽത്തൂടെ ഞങ്ങള് വരുമ്പഴത്തേനും ഒരുപാട് ആമ്പൽപ്പൂക്കളും ഇങ്ങനെ ഒരുപാട് പൂക്കൾ നല്ല വള്ളങ്ങൾ എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പൂ പറിക്കാൻ ഒരുങ്ങാറുണ്ട് ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് പിന്നേ ബീച്ചിപ്പോവാറൊണ്ട് കടലിൻ്റെറമ്പത്ത് ഞങ്ങള് അവടിരിക്കാറൊണ്ട് കൊറേ സമയം ഞങ്ങളവടെ ഇര്ന്ന് സംസാരിച്ച് അങ്ങനെ ഞങ്ങള് അവിടന്ന് എഴ്ന്നേറ്റ് പോന്നു പിന്നെ യാത്ര ചെയ്കേം ഞങ്ങക്ക് മഴക്കാലം അല്ലാത്ത സമയത്ത് വേനൽക്കാലത്ത് പോകാനാണ് കൂടുതലായിട്ട് ഇഷ്ടം ആ സമയത്തക്കെ പോവുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ് ഞങ്ങൾ പോകാറുള്ളത് മിക്കവാറും ഞങ്ങൾ പോകും അവടെയെല്ലാം കണ്ട് വൈകുന്നേരം ഓക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ എത്താറുള്ളൂ അങ്ങനെ ഒക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ വിനോദസഞ്ചാരം എന്ന് പറയുന്ന ആലപ്പുഴ ഹൗസ്ബോട്ടിൻ്റെ അവിടെ ഞങ്ങൾ സ്റ്റാൻറ്റിൻ്റെ അതുവഴി ഇറങ്ങി പതുക്കെ നടന്നു ഹൗസ്ബോട്ടിൽ കയറി അങ്ങനെയാണ് യാത്ര ചെയ്യാറ് അതാണ് ഇഷ്ടം അങ്ങനെയൊക്ക പോകാറുണ്ട് എന്താ വട്ടക്കായലിലൊക്കെ ഇറങ്ങുമ്പഴ്ത്തേനും നല്ല രസമാണ് അങ്ങനെ അതിലെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ അതിൽ യാത്രചെയ്ത് വരാറുണ്ട് ചെന്ന് വരാറുണ്ട് ഞങ്ങൾ കുടുമ്പസമേതമാണ് പോവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ച്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷിച്ച് ഒക്കെയാണ് വീട്ടിൽ വരുന്നത് നല്ല ഭംഗിയാ ഭങ്ങിയുള്ള ആസ്വദിച്ച് പോകുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനെയാണ് ഞങ്ങൾ പോകാറ് പതിവ് മിക്കവാറും ദിവസങ്ങളക്കെ ഞങ്ങൾ യാത്ര പോകാറുണ്ട് ബീച്ചിൽ ആണെങ്കിലും പോയി ഇരുന്ന് അവിടെ കുഞ്ഞുങ്ങൾ കളിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേനും നല്ല ഇഷ്ടം തോന്നും അങ്ങനെയൊക്കെ ഞങ്ങൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് അവിടെ ഇരിക്കാറ് ഒത്തിരി ഒത്തിരി സമയം ഞങ്ങൾ അവിടെ ഇരിക്കും ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോരുന്നത് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പഴേ ഞങ്ങൾ വള്ളത്തിൽക്കയറിയാണ് അക്കരെ ഇറങ്ങുന്നത് അക്കരെ ഇറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത് വള്ളത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ വാതിൽക്കൽ ആറ് ആണ് ആ വള്ളത്തിൽ കയറിയാണ് ഞങ്ങൾ പോവുന്നത് വള്ളത്തിൽ കയറുമ്പഴും നല്ല ഭംഗിയാണ് നല്ല രസാണ് അക്കരെ ഇറങ്ങാനായിട്ടൊക്ക അത്ര ഇതായിട്ടാണ് ഞങ്ങൾ അക്കരെ ഇറങ്ങി പോകുന്നത് അങ്ങനെ ഒരുമാതിരി ഇഷ്ടത്തോടുകൂടിയാണ് ഞങ്ങൾ പോകാറുള്ളത് അങ്ങനെ നല്ല കാഴ്ച്ചകളക്കെക്കണ്ട് ഞങ്ങൾ വീട്ടിൽ വരികയുള്ളൂ